എൻ്റെ ജന്മനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ച് വളർന്നത് ഒക്കെ വയനാട്ടിനെയാണ് വയനാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആതായത് മലകൾ നല്ല കാടുകൾ നല്ല എന്താ പറയുക മല കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സന്തോഷോം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മല ഒന്നും എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഇല്ലാ ഇത് കാണാൻ വേണ്ടി തന്നെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതൊന്നും വലിയ ഇതൊന്നും ആയിട്ടില്ലെങ്കിലും പുറമേ വരുന്നവർക്ക് ഭയങ്കര കാര്യമാണ് ഈ വയനാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മലയോര പ്രദേശങ്ങളാണ് കൂടുതലും ആയിട്ടും ഫോറസ്റ്റ് ഏരിയ കൂടുതലും തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ് വയനാട് വയനാട്ടിൽ പൊതുവേ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു വേനൽ കാലത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അപ്പം എല്ലാം കൊണ്ടും വയനാടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള ഒരു സ്ഥലം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഒരു അനുഭവമാണ് അത് പറഞ്ഞറിയിക്കുന്നതിലും കൂടുതലും നല്ലത് നമ്മൾ ഇതിനെ ആസ്വദിക്കുന്നതാണ് നല്ലത്